ടീ വിയാണോ റേഡിയോയാണോ കൂടുതല് ഞാൻ കാണുകയും കേള്ക്കുകയും ചെയ്യുന്നത് കൂടുതലും റേഡിയോയാണ് കാരണം റേഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുള്ള പരിപാടികളാണ് കൂടുതലായിട്ടും റേഡിയോയിലുള്ളത് ടീ വി എന്ന് പറയുമ്പോള് കുറെ നാളുകൾക്ക് ശേഷം മാത്രമാണ് ടീ വി വന്നത് എന്നാലും എനിക്ക് കൂടുതലിഷ്ടം റേഡിയോ പരിപാടികളാണ് ഈയടുത്ത കാലത്തായിട്ട് ഞാന് കേൾക്കുന്നത് കുടുംബശ്രീയുടെ റേഡിയോശ്രീയെന്ന് പറയുന്നൊരു റേഡിയോ കേട്ടിട്ടുണ്ട് അതാണെങ്കില് നടക്കുമ്പോഴും എടുക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം എപ്പോഴും എനിക്ക് പരിപാടികള് കേള്ക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല അതിന്റെയകത്ത് വിജ്ഞാനപ്രദമായിട്ടുള്ളതും കുടുംബശ്രീയുടെ ഏത് പരിപാടികളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളും പിന്നെ ഓരോരോ ആഘോഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരിപാടികളുമെല്ലാം വരുന്നുണ്ട് പിന്നെ പാട്ട് ഞാന് കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരാളാണ് പ്രത്യേകിച്ചും മെലഡി ആയിട്ടുള്ള പാട്ടുകള് അത് എപ്പോള് വേണമെങ്കിലും എനിക്ക് റേഡിയോശ്രീ ഓൺ ചെയ്ത് റേഡിയോ ഓൺ ചെയ്ത് കഴിയുമ്പോള് ആ റേഡിയോയിൽ കൂടി പാട്ടുകള് കേൾക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെയാണ് ദേവികുളം എഫ് എം റേഡിയോ എഫ് എം കൊച്ചിൻ എഫ് എം അങ്ങനെ അതുപോലെ ആകാശവാണി തിരുവനന്തപുരം ഇവിടുത്തെയെല്ലാം പരിപാടികള് എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ചും ആകാശവാണി റേഡിയോയിലും നിലയത്തിലും ഞാൻ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് റേഡിയോയില് പ്രത്യേകിച്ച് ഞാനൊരു കഥ കള് സ്ഥിരമായിട്ടൊരു മൂന്ന് വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് ഞാൻ ആകാശവാണി ദേവികുളം നിലയത്തില് കഥകളെഴുതി അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ കഥകള് കേൾക്കാനും മറ്റുള്ളവരുടെ കഥകള് കവിതകള് അത് വിജ്ഞാനപ്രദമായ ലേഖനങ്ങള് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാനും ഞാൻ റേഡിയോയിൽ ഇഷ്ടപ്പെടുന്നു അപ്പം റേഡിയോയിൽ എനിക്കേറ്റവും ഇഷ്ടപെട്ട പരിപാടിയെന്താണെന്ന് ചോദിച്ചാല് ആദ്യം ഞാന് പറയും കഥകൾ കേൾക്കാനാണ് മറ്റുള്ളവരുടെ കഥകൾ കേൾക്കാൻ ഞാനാഗ്രഹിക്കുന്നു ആകാശവാണിയില് സാഹിത്യവേളയുണ്ട് അങ്കണം പരിപാടിയുണ്ട് അതുപോലെ തന്നെ കാതോടുകാതോരമെന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് കാതോടുകാതോരം എന്നുപറയുന്ന ആകാശവാണി ദേവികുളം നിലയം അവതരിപ്പിക്കുന്ന ഈ പരിപാടിയില് മിക്കവാറും ശ്രോതാക്കൾക്ക് അവർക്കിഷ്ടപ്പെട്ട പാട്ടുകളെക്കുറിച്ച് ചോദിക്കാം ആ പാട്ടുകള് ഇഷ്ടപ്പെട്ടൊരു പാട്ട് നമ്മളാവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടവര് വെച്ചുതരുന്നു പണ്ടത്തെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോള് എനിക്ക് പണ്ടത്തെ ഒരോർമ്മയാണ് പണ്ട് റേഡിയോയില് രഞ്ജിനി പോലെയുള്ള പരിപാടികൾക്ക് വേണ്ടി കാതോർത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു അതുവെച്ച് നോക്കുമ്പോള് ഇന്നും ആ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ റേഡിയോ കേള്ക്കുമ്പോള് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെത്തന്നെയാണ് ആകാശവാണിയിലെ എല്ലാ നിലയങ്ങളിലും ഞാന് കൂടുതലായിട്ടും കേൾക്കുന്നത് പാട്ടാണ് പണ്ടത്തെ രഞ്ജിനി ആണെങ്കിൽ ഇന്ന് രഞ്ജിനി നിങ്ങള്ക്കിഷ്ടപ്പെട്ട ഗാനങ്ങള് ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങള് അങ്ങനെ വിവിധ പേരുകളില് അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഞാൻ പാട്ടുകള് കേള്ക്കാൻ ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ചും റേഡിയോയിൽ കൂടി ഞാന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളെന്ന് പറയുന്നത് മെലഡിയായിട്ടുള്ള പാട്ടുകളാണ് നല്ല അടിപൊളി പാട്ടുകളെക്കാൾ എനിക്കിഷ്ടം മെലഡിയായിട്ടുള്ള പാട്ടുകളാണ് അതുകൊണ്ട് റേഡിയോയെന്ന് പറയുമ്പോൾ എനിക്ക് റേഡിയോയിൽക്കൂടി ഈ പാട്ടുകള് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോള് ഒരിക്കലും എൻ്റെ സമയം റേഡിയോ അപഹരിക്കുന്നില്ല എനിക്ക് ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴും ബസ്സില് പോകുമ്പോഴും എപ്പോഴാണെങ്കിലും എനിക്ക് പാട്ടുകള് കേള്ക്കാൻ പറ്റുന്നുവെന്നുള്ളതാണ് റേഡിയോ നൽകുന്നൊരു ഗുണം അത് മാത്രമല്ല പ്രത്യേകിച്ചെന്റെ സമയം കളയുന്നില്ല എൻ്റെ സമയം ഏറ്റവും പ്രധാനമായിട്ട് ഞാനെൻ്റെ സമയത്തെ കാണുന്നു അപ്പോള് എൻ്റെ സമയം നഷ്ടപ്പെടാതെ എനിക്ക് പാട്ടുകള് കേൾക്കാൻ വേണ്ടി കേൾക്കാനായിട്ട് റേഡിയോ വരുന്നു മാത്രവുമല്ല ഞാൻ ആവശ്യപ്പെടുന്ന പാട്ടുകള് മെലഡി ആണെങ്കിലും എന്താണെങ്കിലും അത് എനിക്ക് കേൾക്കാൻ പറ്റുന്നു അതുപോലെത്തന്നെ കുടുംബശ്രീയെന്ന പ്രസ്ഥാനത്തില്ക്കൂടി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ റേഡിയോശ്രീ എന്നതാണെങ്കിലും എപ്പോഴും തന്നെ ഉണരുമ്പോള് തൊട്ട് വൈകുന്നേരം ഞാനെപ്പോള് ഉറങ്ങുന്നുവോ എപ്പോഴും പാട്ടുണ്ടാകും അപ്പം എനിക്കിഷ്ടപ്പെട്ട പാട്ടുകള് കേള്ക്കും അതിന്റിടയ്ക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങള് വരുന്നു അപ്പം എനിക്ക് വാർത്താ മാധ്യമങ്ങളില് ടീ വി റേഡിയോ പരിപാടികളില് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയേതാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും പറയുന്നു അത് പാട്ടുകള് തന്നെയാണ് ആ പാട്ടുകളത്ര മനോഹരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും പാട്ടുകള് കേള്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയില് പാട്ടുകള്ക്കിടയില് ഇപ്പോഴത്തെ പുതിയ എഫ് എം റേഡിയോകളിലെ പാട്ടുകൾക്കിടയില് ആ പാട്ടുകൾ അവതരിപ്പിക്കുന്ന റേഡിയോ ജോക്കികളുടെ നർമ്മപ്രധാനമായ അതുപോലെ ശ്രുതിമധുരമായ സ്വരവും കേട്ട് ആ പരിപാടികള് കേൾക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനാഗ്രഹിക്കുന്നതും ഞാനിഷ്ടപ്പെടുന്നതും വാർത്താമാധ്യമങ്ങളില് പരിപാടികള് ഞാന് സിനിമയും സീരിയലുകളുമൊന്നും എന്നെയൊരു പരിധിയില് കൂടുതല് സ്വാധീനിച്ചിട്ടില്ല സിനിമയെ സ്നേഹിക്കുന്നതിനെക്കാളും കൂടുതലായിട്ട് എന്നെ സ്വാധീനിക്കുന്നത് ഇപ്പോഴും റേഡിയോ തന്നെയാണ് കാരണം ഞാനിപ്പോഴും എന്നാല് പിന്തിരിപ്പനാണോയെന്ന് ചോദിച്ചാല് അങ്ങനെയല്ല കാരണം സിനിമാ സീരിയലുകള് കൊണ്ട് കൂടുതലും അത്രയും നമ്മുടെ സമയം വേസ്റ്റായിട്ട് കളയുമെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ താല്പര്യം കിട്ടുന്നത് റേഡിയോ തന്നെയാണ് റേഡിയോ എനിക്കെപ്പോഴും എൻ്റെ ചെറുപ്പകാലം മുതലേ വീട്ടില് അന്നത്തെക്കാലത്തൊക്കെ റേഡിയോയെന്ന് പറയുമ്പോള് ലൈസൻസ് വേണമായിരുന്നു എൻ്റെ ഒരോർമയില് ഫിലിപ്സിന്റെയൊരു ചെറിയ ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്നൊരു റേഡിയോയായിരുന്നു അതിന് ലൈസൻസ് വേണമായിരുന്നു അതിനുശേഷം കാലങ്ങള് മാറി ഇപ്പം ഇപ്പം റേഡിയോ ഇടക്കാലം കൊണ്ട് വാർത്താമാധ്യമങ്ങളിലേക്ക് ടീ വിയുടെ കടന്നുവരവോടുകൂടി ആൾക്കാര് പലരും റേഡിയോ ഉപേക്ഷിച്ചുവെങ്കിലും പക്ഷേ ഇന്നും റേഡിയോ അതിനുശേഷം ഈയടുത്ത കാലങ്ങളിലായിട്ട് റേഡിയോ ഇവിടെ ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ റേഡിയോ എന്നെപോലെയുള്ള കുറെ പേരോട് ഞാന് ചോദിച്ചപ്പോള് പറഞ്ഞത് റേഡിയോയില് അവർക്കിപ്പോഴും ഇഷ്ടം പാട്ടുകള് കേൾക്കാനായിട്ട് വാർത്തകൾ കേള്ക്കാനായിട്ട് അവർ റേഡിയോയെ ആശ്രയിക്കുന്നുവെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം റേഡിയോ തന്നെയാണ്